വെട്ടുകത്തി കൈക്കോട്ട് വാട്ടർ പമ്പ് ചെടിക്ക് നനയ്ക്കുന്ന ചെറിയ ഹോസ് കത്രിക അറബാന ചെടിച്ചട്ടി ഗ്രോബാഗ് അങ്ങനെ ഒരുപാട് ഉപകരണങ്ങള് നമുക്ക് പൂന്തോട്ട നിർമാണത്തിനായിട്ട് സഹായിക്കുന്നുണ്ട് വെട്ടുകത്തി ഉപയോഗിച്ച് നമുക്ക് കൊമ്പുകള് മുറിക്കാനും ചെറിയ ചെടികളുടെ കടഭാഗം ഇളക്കി കൊടുക്കാനും ഉപയോഗിക്കാവുന്നതാണ് കൂർക്ക തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങള് നടുന്നതിനായിട്ട് നമുക്ക് കിളയ്ക്കാനായിട്ട് കൈക്കോട്ട് തന്നെ ഉപയോഗിക്കാം ചെറിയ ചെടികളാണെങ്കില് വാട്ടർ പമ്പ് ഉപയോഗിച്ച് നമുക്ക് നനയ്ക്കാവുന്നതാണ് ഇനി വലിയ ചെടികളാണെങ്കില് നമുക്ക് ഹോസ് നീട്ടി വെച്ച് നനയ്ക്കാവുന്നതാണ് തെങ്ങിനും മറ്റും അതിനേക്കാൾ വലിയ ഹോസ് ഒന്നരയിഞ്ചിൻ്റെ ഹോസ് ഉപയോഗിച്ച് നനയ്ക്കാവുന്നതാണ് ബുഷ് മറ്റുള്ള ചെടികള് കൊമ്പുകള് വലുതാകുമ്പോൾ അല്ലെങ്കില് അതിൻ്റെ ഇല പടർന്ന് പിടിക്കുമ്പോൾ നമുക്ക് കത്രിക ഉപയോഗിച്ച് അത് കട്ട് ചെയ്യാവുന്നതാണ് ഇവയ്ക്ക് വേണ്ട വളങ്ങളും മറ്റും മണ്ണ് വളം തുടങ്ങിയവ നമുക്ക് അറബാനയിൽ കൊണ്ടു വന്ന് ഓരോന്നിനും ഇട്ട് കൊടുക്കാവുന്നതാണ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടികളും ഗ്രോബാഗുകളും ചെടികളുടെ സുഖമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്